ഇന്നത്തെ കാലത്ത് നമ്മുടെ മലയാള ഭാഷ അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മളൊരു ജോബിന് വേണ്ടീട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റർവ്യൂന് പോവുമ്പോൾ അവിടെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാനുള്ള വോയിസില്ല നമുക്ക് ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ലാംഗ്വേജിലും സംസാരിക്കാം പക്ഷെ മലയാളത്തില് സംസാരിക്കുന്നവർക്ക് ജോലിയില്ല ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് എന്താണീ മലയാള ഭാഷയ്ക്ക് ഇത്ര കുഴപ്പമെന്ന് എനിക്കറിയില്ല നമ്മുടെ വേറൊര് വേൾഡിലേക്ക് പോവുമ്പോൾ വേൾഡിലേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോവുന്ന സമയത്ത് നമുക്ക് വേറെ ലാ അവരുടേതായിട്ടൊള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം അത് ശരി തന്നെയാണ് പക്ഷെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു നേറ്റീവ് പ്ലേസില് പോലും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഭയങ്കര തടസ്സവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മള് മലയാളം സംസാരിക്കണത് ഭയങ്കര ലജ്ജ ആയിട്ട് കാണുന്ന ഒരു സമൂഹം ഒരു കൂട്ടം സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്